വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വിദ്യാർത്ഥികളുടെ പഠനത്തെ ദോഷകരമായി എന്നാൽ നല്ല ദിശയിലും ബാധിക്കുന്നുണ്ട് നമുക്ക് അറിയാം കൊറോണ കാലഘട്ടങ്ങളിലൊക്കെയാണ് വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഏത് ഏറെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് സ് അന്വേഷിച്ച് അവരുടെ ആശയങ്ങൾ കിട്ടി കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് അതിൽ കൂടുതൽ ആശയങ്ങൾ കണ്ടെത്താൻ ഇങ്ങനെ ഉള്ള സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും വിദ്യാഭ്യാസ മേഘലയിൽ തന്നെയാണ് അപ്പോൾ അതിനെ കുറിച്ച് അവരുടെ ആശയങ്ങൾ ഓൾറെഡി അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും പക്ഷേ അവരുടെ ബുദ്ധിപരമായ കഴിവുകളെ അത് ഏറ്റവും പിന്നിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാം കൊറോണ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിച്ചിട്ടുള്ളതും മുതിർന്നവരും ഓഫീസിലായാലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വീടുകളിൽ തന്നെയിരുന്ന് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങൾ ഒക്കെ അന്നത്തെ കാലത്ത് കൂടിയിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് വിദ്യാഭ്യാസപരമായി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ആശയങ്ങൾ വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ബുദ്ധിപരമായി കാര്യങ്ങളിൽ അവർക്ക് പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള മേഖലകളെ അത് ഒത്തിരി ഏറെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയേണ്ടുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ അതായത് മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇന്ന് കാണുന്നതല്ല നാളെ ഉള്ള ഉപയോഗങ്ങൾ അപ്പോൾ ഉപയോഗത്തിൻ്റെ സാങ്കേതിക ഉപയോഗത്തിൻ്റെ മേഖലകൾ കൂടുതലും വ്യത്യാസപ്പെട്ടു കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഏറ്റവും ഫലപ്രദമാണ് കാരണം വിരൽതുമ്പിൽ കിട്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ജോലികൾ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് കിട്ടുന്നത് എങ്കിലും അവരുടെ വായനയെ ഏറ്റവും അധികം ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം വായനാശീലം പിന്നെ ഒരു പരിധി വരെ കുട്ടികളിൽ ഇല്ല എന്ന് തന്നെ പറയാം എന്തെങ്കിലും ഒരു അവർ അവർക്കൊരു ഒരു ജ പിന്നെ കണ്ടെത്താൻ ഒരു ഒരു പിന്നെ വിഷയം കണ്ടെത്താനൊരു എഴുതാൻ കൊടുക്കുമ്പോൾ അവർ കൂടുതൽ അന്വേഷിക്കുന്നത് ഇങ്ങനുള്ള സാങ്കേതിക വിദ്യകളാണ് അതവരുടെ മുന്നിൽ കൺമുന്നിൽ തന്നെ ഉണ്ട് അവരത് എഴുതുന്നു അത് സ ആ ആ രീതിയിൽ പോകുന്നു എങ്കിലും അതിന് വേറൊരു അതൊരു വിജയം തന്നെയാണ് പക്ഷേ വേറൊരു പോരായ്മ എന്ന് പറയുന്നത് അവർക്ക് കണ്ടെത്താൻ അവരുടെ ബുദ്ധിപരമായ വളർച്ചയിൽ അത് പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് ആ അതായത് ക നമുക്ക് ഒരു ആശയം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് എഴുതുക എഴുതാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പണ്ട് കാലത്ത് മാധ്യമങ്ങളൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് നമുക്ക് പത്രങ്ങളിലൂടെയും അല്ലെങ്കിൽ വായനകളിലൂടെയും വായനശാലകളിലൂടെയും കിട്ടിയിരുന്ന അറിവുകളായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇന്ന് കുട്ടികൾക്ക് ഞൊടിയിടയിൽ കിട്ടുന്ന അറിവുകളാണ് അത് അവരുടെ മനസ്സുകളിൽ കൂടുതൽ നിലനിൽക്കുകയുമില്ല അപ്പം വായനയിലൂടെ കിട്ടുന്ന അറിവുകൾ അത് പ്രയോജനപ്പെടുത്തി അന്നത്തെ കുട്ടികൾ മുന്നേറി പോയിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഉള്ള സാങ്കേതിക വിദ്യകളാണ് അവർ ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാം ഇത് ഒരു പരിധിവരെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ബാധിക്കുന്നുണ്ട് ബാധിക്കുന്നുണ്ട് അങ്ങനെ പറയാം കാരണം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും ഒക്കെ നമുക്ക് ബാധിക്കുന്നതിന് ഒരു കാരണമായി തന്നെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ നിലനിൽക്കുന്നുണ്ട് അപ്പം അത് പക്ഷേ വായനയിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ഏത് കാലത്താണെങ്കിലും മാഞ്ഞു പോവുകയില്ല നമുക്ക് നല്ലതും ചീത്തയും എല്ലാം തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ എന്ന് പറയുമ്പോഴ്ത്തേനും കുട്ടികൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു വായനയിലൂടെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു സ ഒരു സമയം അവർക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം ഇതിൽ നമുക്ക് നല്ലത് എന്ന് പറയുമ്പോൾ ഒത്തിരി അറിവുകൾ നമുക്ക് ഈ ഈ സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനൊരു കാലയളവുണ്ട് പണ്ട് കാലത്തൊരു കാലയളവുണ്ടായിരുന്നു ഇപ്പം ആ ഒരു കാലയളവ് നമുക്ക് ഇല്ല നം നമുക്ക് കിട്ടുന്ന കാലയളവെന്ന് പറയുന്നത് ഞൊടിയിടയിൽ അറിവുകൾ കിട്ടുന്നു എന്നുള്ളതാണ് ഞൊടിയിടയിൽ തന്നെ അറിവുകൾ കിട്ടുന്നു എന്നുള്ളത് അത് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞ് പോവുകയും ചെയ്യുന്നു പക്ഷേ വായനയിലൂടെ കിട്ടുന്ന അറിവ് അത് എന്നത്തെക്കാളും നമുക്ക് നിലനിൽക്കുക തന്നെ ചെയ്യും